ഞാൻ ഓണ്ലൈനില് നിന്നും വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ചെയര് ആയിരുന്നു ഞാന് വാങ്ങിച്ചത് വീടിന് അത്യാവശ്യം ആയിട്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാല് ചെയറാണ് ഞാന് വാങ്ങിച്ചത് മരത്തിന്റെ ആ ഒരു ചെയര് ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ശരിക്കും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു കാരണം ആ ഒരു റേറ്റിന് ഇത് ശരിക്കും നല്ല അഫോര്ഡബിള് ആണ് ഇതിനു നമുക്ക് നല്ല കംഫര്ട്ട് ആണ് നമുക്ക് ഉപയോഗിക്കാനും മറ്റു കാര്യങ്ങള്ക്കും അതുപോലെ തന്നെ ഞാന് വീട്ടിൽ വന്ന ഒരു ഗസ്റ്റും അവര് പറയണത് നല്ല പ്രോഡക്റ്റ് ആണ് കാരണം നന്നായിട്ടുണ്ട് എന്ന് പറയണുണ്ടായിരുന്നു